ഇന്ത്യയിലെ ഗതാഗത സംബന്ധമായ നമ്മൾ നേരിടുന്ന മെയിനായിട്ടുള്ള വെല്ലുവിളി എന്നു പറയുന്നത് ഇപ്പോൾ റോഡ് മാർഗമാണ് കൂടുതലായും ചരക്കു നീക്കങ്ങളും മറ്റും നടക്കുന്നത് റോഡ് എൻ എച്ചാണേലും മറ്റുള്ള ചെറു ചെറിയ ചെറിയ റോഡുകളാണെങ്കിലും ഇപ്പോളൊരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം റോഡുകൾ മുഴുവൻ കുഴികളും റോഡിനു വീതി ഇല്ലായ്മ ഇതൊക്കെയാണ് ഏറ്റവും ഏറെ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് എം സി റോഡാണേല് എൻ എച് റോഡാണങ്കിലും കുറച്ചുകൂടെ വീതി എടുത്ത് നല്ലൊരു നല്ല നല്ല ആധുനിക രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുനടക്കുന്നതാണ് നല്ലത് അതുപോലെതന്നെ ഇപ്പോൾ മറ്റൊരു ചരക്കു നീക്കം വരുന്നത് നമുക്ക് ഏയർ മാർഗം കാർഗോ ഏയർ കാർഗോയാണ് അതിനും ഒരുപാട് ചെലവ് കൂടുതലാണ് അപ്പോള് നമ്മളെ ഓരോ സാധനങ്ങളും മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കോ രാജ്യങ്ങളിലേക്കോ പോവുമ്പോള് എയർ മാർഗം ഉള്ളതു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മള്ക്ക് ആശ്രയിക്കുന്ന കടൽ മാർഗം കപ്പല് കപ്പൽ മാർഗമാണെങ്കിൽ ചെലവ് കുറയും കുറയും അപ്പോള് കൂടുതൽ കപ്പൽ മാർഗങ്ങളിലൂടെ നമ്മളുടെ ചരക്കു ഗതാഗതത്തെയും കൊണ്ടുപോകുന്നതിനാണ് ഏറ്റവും ചെലവു കുറഞ്ഞത് അപ്പോൾ നമ്മടെ ഉല്പന്നങ്ങൾക്ക് നമുക്ക് വിലയും കിട്ടും ചെറിയ പൈസയിലത് എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യും ഇതിനായി ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഇതിനുള്ള സാമ്പത്തിക ചെലവാണ് ഇവിടുന്നിപ്പോള് ഡെല്ലിക്ക് ഒരു കിലോ എന്തെങ്കിലും ഒരു സാധനം പോകണമെങ്കിൽ നൂറു കണക്കിന് രൂപ അതിനു ചെലവാകും അപ്പോള് ഏറ്റവും കുറഞ്ഞത് ചെറിയ രീതിയിലൂടെ നമ്മള്ക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഉള്ള ഗതാഗത മാർഗം നമ്മള് അവലംബിക്കേണ്ട അതുപോലെതന്നെ റോഡ് മാർഗമാണെങ്കിലും ആ റോഡ് എല്ലാം വളരെ മോശമായ ഒരവസ്ഥയിലാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ എന്നല്ല കേരളത്തിലെയും വീതി കുറവും റോഡില് മുഴുവൻ കുഴികളും ഒക്കെയാണ് അപ്പോൾ ചരക്കു നീക്കത്തിനു വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്